ഇപ്പോൾ വയനാട് ജില്ലയില് വ്യത്യസ്ത തരം ഋതുക്കള് ഇപ്പോൾ കടന്നുപോകുന്ന ഒരു ടൈം ആണ് കാരണമെന്നുവെച്ചുകഴിഞ്ഞാല് പക്ഷേ നമ്മക്കെന്നാലും ഈ ടൈമില് നല്ലൊരു മഴക്കാലവും കാര്യങ്ങളൊക്കെയാണ് വരേണ്ടത് പക്ഷേ മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാലിപ്പോൾ നമുക്ക് മുമ്പ് കിട്ടുന്നതിനേക്കാട്ടും കുറവാണ് മഴ ലഭിച്ചിട്ടുള്ളത് ഇരുപത്തിയഞ്ച് അമ്പത്താറ് ശതമാനത്തിലധികം നമുക്ക് മഴ കുറവാണ് ലഭിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ഇനിയങ്ങോട്ട് എങ്ങനെ ജീവിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇനി വരൾച്ചയുടെ കാല കാലഘട്ടങ്ങളൊക്കെ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് വെള്ളം കിട്ടാണ്ടായി ആകുമോ എന്നൊക്കെ ഒരു ഡൗട്ടാണ് കാര്യങ്ങള് അപ്പോൾ നമുക്ക് ദൈനം ദിന ജീവിതത്തില് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകം വെള്ളമാണ് വെള്ളം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാതൊരു എന്താ പറയുക ദ്രാവകമാണ് നമുക്ക് നമ്മൾ ഇപ്പോൾ ഒന്ന് നമ്മക്കെന്തേലും വായ ഒന്ന് തൊണ്ട നനയ്ക്കണമെങ്കിൽ പോലും നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള ഒരവസ്ഥയാണ് വെള്ളം കിട്ടാണ്ട് നമ്മുടെ മരണപ്പെട്ടു വരെ പോകാനുള്ള സാധ്യതകള് കൂടുതലാണ് അപ്പോൾ അതൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാല് മെയിനായിട്ട് നമുക്ക് ഇത് വരുന്നതെന്ന് വച്ച് കഴിഞ്ഞാല് പല രീതിയിലുള്ള ആഹ് വാർഷിക അതായത് നമുക്കിപ്പോൾ ഒരു വാർഷികത്തില് മഴ പെയ്യുന്നത് രണ്ടു മൂന്ന് രണ്ട് മില്ലി മീറ്റർ ഒക്കെ ആയിരിക്കും പക്ഷേ നമുക്കിവിടെ അത്ര പോലും മഴ ഇല്ല ഇപ്പോൾ നല്ല രീതിലുള്ള താപനില കൂടുതലാണ് ഇപ്പോൾ നമുക്ക് മുപ്പട്ടെഗ്രി മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസിൻ്റടുത്ത് നമ്മുടെ വയനാട്ടിൽ തന്നെയിണ്ട് ആകെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് ഡിഗ്രി അങ്ങനെയൊക്കെയാണ് വരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസിൻ്റടുത് കൂടുതലായിട്ടാണ് കാണിക്കുന്നത്